എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ നൽകുന്നത് റേഡിയോ വാർത്തയാണെന്നുള്ളതാണ് റേഡിയോ വാർത്തകൾ അധികം തെറ്റായ കാര്യങ്ങളൊന്നും പറയുന്നില്ല കൂടുതലും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇന്ന് മിക്ക വീടുകളിലും റേഡിയോകളില്ല അതുകൊണ്ടുതന്നെ റേഡിയോയെക്കുറിച്ച് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയത്തുപോലുമില്ല പണ്ട് കാലത്തൊക്കെ റേഡിയോ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാ കുടുംബങ്ങളിലും റേഡിയോ ഉപയോഗിച്ച് അവർ എല്ലാവരുംകൂടി ഒത്തൊരുമിച്ച് റേഡിയോ വാർത്തകൾ ആ സമയമാവുമ്പോൾ ജോലിയെല്ലാം തീർത്ത് വന്നിരുന്ന് കൃത്യമായിട്ട് കേൾക്കുകയും ആ അതിനെക്കുറിച്ച് പിന്നീട് ഒരു ചർച്ച അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയൽ അയൽപക്കത്ത് റേഡിയോ ഇല്ലെങ്കിൽ അവരും റേഡിയോ ഉള്ള വീടുകളിൽ പോയിരുന്ന് അങ്ങനെ ഒരു നല്ല സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു റേഡിയോ വാർത്തകൾ കേൾക്കുമ്പോൾ അതിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നും ഇല്ല പിന്നെ പത്ര വാർത്തകളിലാണ് ഏത് ഇപ്പോൾ മുഴുവനായിട്ട് സത്യസന്ധമായ രീതിയിലല്ല പല പത്രങ്ങൾ ഇന്നൊത്തിരി പത്രങ്ങൾ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് പലതിലും പലതരത്തിലാണ് വാർത്തകൾ വരുന്നത് വാർത്തകളെ വളച്ചൊടിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മൊബൈലാണെങ്കിലും മൊബൈലിൽ വളരെയധികം ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അത് ഒത്തിരി ആൾക്കാരെ വഴിതെറ്റിക്കുന്നു ഇന്ന് കുഞ്ഞ് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ മൊബൈലിന് അഡിക്റ്റായിട്ടാണ് ജീവിക്കുന്നത് അതവർ മൊബൈൽ വാർത്തകൾ കാണുന്നതുവഴി ഒരുപാട് തെറ്റുകളിലേക്ക് ചെന്നെത്തി ചെന്നുചേരുന്നു അതുകൊണ്ട് മൊബൈലൊക്കെ ഉപയോഗിക്കുകയേ ഉപയോഗിക്കേണ്ട എന്നല്ല അത്യാവശ്യം കാര്യങ്ങൾക്കുമാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലാതെ പോകും പോകാം ഇന്നിപ്പം മൊബൈല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നതായാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഒത്തിരി മോശമായിട്ടുള്ള വാർത്തകളൊക്കെ ഈ മൊബൈലിൻ്റെ ഉപയോഗം വഴി അതുപോലെ റേഡിയോയാണെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല റേഡിയോയിൽ നല്ല നല്ല പരിപാടികളും വാർത്തകളും ഒക്കെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യസന്ധമായ വാർത്തകൾ കൂടുതൽ അറിയണമെങ്കിൽ റേഡിയോ തന്നെ ഉപയോഗിക്കണം ഇനിയും വരുന്ന തലമുറകൾ റേഡിയോ വാങ്ങുകയും വീടുകളിൽ റേഡിയോ വാർത്തകൾ കേൾക്കുകയും ചെയ്യണം അതുവഴി സമൂഹത്തിൽ ഒരു പരിധിവരെ നല്ല വാർത്തകൾ ഇനിയുള്ള ആളുകൾക്ക് വരുന്ന തലമുറയ്ക്കാണെങ്കിലും കേൾക്കാൻ സാധിക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് റേഡിയോ പോലും അറിയത്തില്ല റേഡിയോ എന്താണെന്നുപോലും അറിയത്തില്ല കണ്ടിട്ടില്ലാത്ത വളരെയധികം കുട്ടികളുണ്ട് പണ്ട് അങ്ങനെ അല്ലായിരുന്നു എല്ലാവരുംകൂടി ഒത്തൊരുമിച്ച് റേഡിയോ വാർത്ത കേൾക്കുകയും പരസ്പരം സംസാരിക്കുകയും അതിലൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ പണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിലായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് റേഡിയോ വാർത്തകൾ മാത്രമായിരുന്നു അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അതിനുശേഷം പത്രങ്ങൾ വരുത്തുന്ന ഭവനങ്ങളും ഉണ്ടായിരുന്നു എന്നാലും റേഡിയോ വാർത്തയായിരുന്നു കൂടുതൽ നല്ലത് പിന്നെ ഇന്ന് ഇന്നിപ്പം എന്താ സമൂഹത്തിൽ വളരെ ദോഷമായ രീതിയിലാണ് ഈ മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക റേഡിയോയുടെ ഉപയോഗം എല്ലാവരും റേിഡിയോ വാർത്തകളിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സത്യസന്ധമായിട്ട് വാർത്ത നൽകുന്നത് റേഡിയോയാണ് അല്ലാതെ അതിൻ്റകത്ത് ഒത്തിരി കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ ആണ് വാർത്തകൾ പറയുന്നത് അതിപ്പം എല്ലാവർക്കൊന്നും കേൾക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല സമയക്കുറവും മുനുഷ്യർക്ക് പല തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് പലരും അങ്ങനെ വാർത്തകളിലോട്ട് പോകുന്നുപോലുമില്ല ചുരുക്കം കുറേ ആൾക്കാർ വാർത്ത കേൾക്കുന്നു കുറേപേർ അല്ലാത്ത പരിപാടികളൊക്കെ കണ്ട് മൊബൈലൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ സമയം കളയുന്നു അതാണ് അതിൻ്റെ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ റേഡിയോ ആണെന്നുള്ളതാണ് പറയാനുള്ളത്